ആ ഞാൻ ഒരു വലിയ കൂട്ടം ആൾക്കാരെന്നു പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ കുറച്ച് വിരുന്നുകാർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ മോൻ്റെ പിന്നെ എന്താ പറയാ ഒരു ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒന്നാം വയസ്സിലെരു ആഘോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തുപറ്റിന്നാൽ പുറമേന്നു ഇപ്പോൾ നമ്മൾ പാചകം ചെയ്യാണെങ്കിൽ നല്ല പൈസ കൊടുക്കേണ്ടി വരും അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങീട്ട് വീട്ടിലാണ് വെക്കെണ്ടി വന്നത് അപ്പം നല്ല രീതിയിൽ വെക്കാൻ കഴിഞ്ഞുന്നാണ് എൻ്റെയൊരു വിശ്വാസം കാരണമെന്താന്ന് വെച്ച്കഴിഞ്ഞാൽ നമ്മൾ മെയിൻ ആയിട്ട് ഉണ്ടാക്കിയ വിഭവം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ബിരിയാണി ആയിരുന്നു അപ്പോൾ ബിരിയാണിന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം യൂട്യൂബ് നോക്കിട്ടൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയത് കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ ബിരിയാണീം കാര്യങ്ങളൊക്കെ വെച്ചായിരുന്നു നല്ല രീതിയിലുള്ള ബിരിയാണിയാണെന്നു എല്ലാവരും പറയോം ചെയ്തായിരുന്നു അപ്പം അതായിരുന്നു എൻ്റെയൊരു പ്രധാനായിട്ടും കുറെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നൊരു പാചകം ചെയ്യൽ അപ്പം ഞാനാദ്യമായിട്ടാണ് അങ്ങനെ അത്രേം പേർക്ക് ഒരു പത്തു മുപ്പത് പേരുണ്ടായിരുന്നു മുപ്പത് പേർക്കുള്ള ഭക്ഷണം ഞാനാദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിൻ്റെ കണക്ക് കാര്യങ്ങളൊന്നും വലിയ കാര്യമായിട്ട് എനിക്കറിയില്ല പിന്നെ ഞനൊരു യൂട്യൂബ് ചാനല് നോക്കീട്ട് അങ്ങനെയാണ് ഞാൻ മെയിൻ ആയിട്ട് വെച്ചത് നല്ല രീതിയിൽ എന്താ പറയാ നല്ലൊരു അവസരം കിട്ടിയ പോലെയാണ് എനിക്ക് തോന്നിയതും അപ്പോൾ അതുപോലെ ഇനിയും വെക്കാനൊക്കെ കഴിയട്ടേന്നു ഞാൻ വിചാരിക്കുന്നു ഇതാണെൻ്റെയൊരു അവസ എന്താ ഒരു അവസരമുണ്ടായത് ഇപ്പോൾ ഇങ്ങനെയാണ്